ആ അതെ സർ പറഞ്ഞോളു ആ ഓക്കെ സർ എങ്ങോട്ടാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്

ആ ഓക്കെ

സാറ് എങ്ങനെയാണ് എവിടെയാണ് സ്ഥലം ആ ഓക്കെ സാറ് ട്രെയിനിനാണൊ വരുന്നത് ട്രെയിനിലാണോ വരുന്നത് ആ ഓക്കെ സാറപ്പോൾ നമുക്കിപ്പോൾ ടാക്സി ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും അവൈലബിളാണ് അല്ല എത്ര ഉള്ളത് സെവൻ സീറ്ററാണല്ലെ ഓക്കെ നമുക്കിപ്പോൾ ഇന്നോവ വരുന്നുണ്ട് എർട്ടിഗ വരുന്നുണ്ട് ബൊലേറൊ വേണമെങ്കിൽ അതും ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ടവേര എല്ലാ സെവൻ സീറ്ററ് വണ്ടികളും നമുക്കവൈലബിളാണ് സാർ ഏതാണ് ചൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ പെർ ഡേ ഒരു ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുക ആ അപ്പോൾ നമുക്ക് കിലോമീറ്ററ് ബേസിൽ ഒരു പെർ ഡേ ഒരു നാന്നൂറ് കിലോമീറ്ററ് വരെ മാക്സിമം പോവാം അ അതിൽ കൂടുതലാവുമ്പോഴാണ് നമുക്ക് റേററ്റിൽ വ്യത്യാസം വരും അതായത് നാന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ എക്സ് അതിൻ്റെ ഇത് മാറും ആ സാറ് എപ്പോഴത്തേക്കാണ് എത്തുക നമ്മൾ കോ നമ്മൾ കോഴിക്കോടാണ് സാർ

ആണല്ലെ

ആ ഏഴ് പേർ സാറ് എപ്പോഴാണ് എത്തുക മറ്റന്നാൾ ഏകദേശം ഒരു ടൈമ് പറയാൻ പറ്റുമോ നമ്മൾ അല്ലെങ്കിൽ സാർ എത്തുന്നേന് ഒരര കുഴപ്പമില്ല സാർ എത്തുന്നേന് ഒരു ഹാഫ് ആൻ അവർ മുൻപ് നമ്മളെ വിളിക്കാൻ ഒരര മണിക്കൂർ മുൻപ് വിളിക്കാണെങ്കിൽ ഞങ്ങളപ്പോഴത്തേക്കും അങ്ങോട്ട് വണ്ടി അയക്കാം എന്നിട്ട് നമുക്ക് ഡെസ്റ്റിനേഷൻ കാര്യങ്ങളൊക്കെ സാറ് ഏകദേശം പ്ലാൻ ചെയ്തിട്ടുണ്ടാവൂലോ അല്ലെ ആ ഓക്കെ അപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ ഒക്കെ നോക്കീട്ട് കറക്റ്റ് ലൊക്കേഷൻ നോക്കി നമുക്ക് പോവാം സാറ് പിന്നെ എന്തേലും പ്ലാൻൽ എന്തേലും ചേഞ്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ

എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ആ ഓക്കെ സാർ

റൂമും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം ഓക്കെ എന്തായാലും സാറ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം